ഹലോ ഞാന് ആ ഓക്കെ സാറേ ഞാന് ഈ പോക്കോ എക്സ് ഫൈവ് പ്രോ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ ഷോപ്പിൽ അവൈലബിളുണ്ടോ ആ എനിക്ക് എതൊക്കെ കളറാണുള്ളത് ആണല്ലേ അപ്പോള് കസ്റ്റമൈസ്ഡ് അവൈലബിളല്ലേ എത്രയാകും സിക്സ്റ്റീനാണോ സിക്സ്റ്റിയാണോ ഫൈവ് സീറോ ആണോ ഫൈവ് എത്രയാണ് കറക്ട് ഫൈവ് സീറോ ഫിഫ്റ്റി തൗസൻഡോ അത് ഭയങ്കരം എക്സ്പെൻസീവാണല്ലോ അപ്പം ഈ ഫോണിന് ഫോണിന് എത്രയാണ് വരുന്നത് ഫോണിന് ടൂ ലാക്കാണല്ലേ ഓക്കെ അപ്പം നമ്മളിപ്പോള് അവിടെ സ്റ്റോക്കിൽ അവൈലബിളാണല്ലേ ഓ ഹാ ഓക്കെ ഓക്കെ ഓക്കെ അപ്പം ഞാനപ്പം സാര് അവിടുത്തെ ലൊക്കേഷനൊന്ന് സെൻഡ് ചെയ്യാമോ ആ എന്നാല് ആക്സസറീസിൻ്റെ ഡീറ്റെയിൽസൊന്ന് അപ്പോള് അതിന്റെയകത്ത് ഫൈവ് ജി ബി റാമാണോ വരുന്നത് അതോ സിക്സ് ജി ബിയോ സെവൻ ജി ബി റാമല്ലേ ഓക്കെ ഓക്കെ അത് കർവ്ഡ് ഡിസ്പ്ലെ ആണോ ആ ഓക്കെ ഓക്കെ ആ അപ്പം ഈ ക്യാമറയുടെ ക്വാളിറ്റിയൊക്കെ എങ്ങനെയാണ് എത്ര ഹെർട്സിൻ്റെയാണ് വരുന്നത് മ്മ് ആണല്ലേ ഡിസ്പ്ലെ ഡിസ്പ്ലെ ആ ഡിസ്പ്ലെ ഫൈവ് ഹണ്ട്രഡ് ഹെർട്സല്ലേ ആ ഓക്കെ ഓക്കെ അപ്പം ടെൻ തൗസൻഡ് എം ബി ഉണ്ടല്ലേ ഓക്കെ ഓക്കെ ആ ആ ഓ ബാക്കില് ഫുള് ക്യാമറയാണ് അപ്പം എല്ലാം വൈഡ് ആങ്കിൾ രീതിയിൽ എടുക്കാമല്ലെ എത്ര സൂം ചെയ്യാം ഇപ്പോള് എസ് ട്വൻറ്റി ഫോർ ആൾട്രയുടെ ഏറ്റവും മുകളിലത്തെ ടോപ്പ് മോഡൽ വേരിയൻറ്റാണെന്ന് തോന്നുന്നുവല്ലേ ഇത് ആഹാ ഓക്കെ ഓക്കെ വയർലെസ് ചാർജറുണ്ടോ ഓക്കെ അപ്പോള് എൻ്റെ വീട്ടില് കുത്തിയിട്ടാല് ഞാൻ ഓക്കെ ഓക്കെ ഓ ഓക്കെ ഓക്കെ ആ ഹാ ആണല്ലേ ഞാന് അപ്പം എത്രയും പെട്ടെന്ന് ഞാനൊന്ന് വന്ന് എടുക്കാൻ നോക്കാം കേട്ടോ ഞാനിപ്പം ആ ഓക്കെ ഓക്കെ ഞാന് അതിൻ്റെ കസ്റ്റമൈസ്ഡിൻ്റെ ഡീറ്റെയിൽസ് നോക്കി ഞാൻ പറയാം ആ ഓക്കെ വൺ ലാക്ക് കുറയ്ക്കും അല്ലേ ആ ഓക്കെ ഓക്കെ ഞാൻ ഇപ്പം കാർഡ് പേയ്മെൻറ്റുണ്ടല്ലോ അവിടെ ആ ആണല്ലേ ഓക്കെ ഓക്കെ ഓക്കെ ആ ശരി സാറെ ഞാനെന്നാല് വിളിക്കാം കേട്ടോ ഞാന് അപ്പം ഞാന് അപ്പം എത്രയും പെട്ടെന്ന് ഞാൻ വരാൻ നോക്കാം സാര് അതിൻ്റെ ലൊക്കേഷനും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഒന്നുകൂടെയൊന്ന് വാട്സപ്പില് ഇട്ടേക്കൂ കേട്ടോ ഞാന് എൻ്റെ ഫാമിലി ഫാമിലിയുടെ കൂടെയൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് പറയാം കേട്ടോ ഓക്കെ ഓക്കെ ഞാൻ ഹായ് ഇട്ടേക്കാം ഈ നമ്പര് തന്നെയല്ലെ വാട്സപ്പിലും ഓ ശരി എന്നാല് ശരി എന്നാല്